സൈക്കിൾ ഓടിക്കുമ്പം അതായത് മെയിനായിട്ട് എന്തൊക്കെ സുരക്ഷാ മാ അതായത് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ പരിണഗ പരിഗണനകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ എവിടെ പോകുകയാണെങ്കിലും നമ്മൾ ഇടത് സൈഡ് ചേർന്ന് പോകുക നമ്മൾ അതായത് ഫോണൊന്നും വിളിക്കാതെ ഫോൺ വിളിക്കാണ്ട് വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ സൈഡ് മാത്രം നോക്കി പോകുക അതായത് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മുടെ കയ്യിൽ വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഡ്രൈവറാണ് ഡ്രൈവർ നമ്മൾ ഡ്രൈവറല്ലാത്ത ആൾക്കാരും ആധാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഡ്രൈവറുടെ അടുത്ത് ആധാർ വേണം മെയിനായിട്ട് ലൈസെൻസ് വേണം പിന്നെ വണ്ടിൻ്റെ ബുക്കും പേപ്പറും വേണം അതായത് അതെല്ലാം ക്ലിയർ ആയിരിക്കണം അതായത് ഇൻഷുറൻസ് ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അടച്ചിരിക്കണം പിന്നെ പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതായത് നമുക്ക് പെട്ടന്നൊരു പോലീസ് ചെക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പോം ഇല്ലാണ്ട് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് അവർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമുക്ക് പോകാം